ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജില്ലയില് കാലാവസ്ഥേനെ കുറിച്ച് പറയുവാണേൽ നമുക്ക് കൂടുതലായിട്ട് ചൂടാണ് ലഭിക്കുന്നത് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഡിസംമ്പർ മാർച്ച് അതായത് ഡിസംമ്പർ തൊട്ട് മാർച്ച് ആ ഒരു വർഷത്തിൻ്റെ ടൈമിൽ മുഴുവൻ നമുക്ക് ചൂടായിരിക്കും ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലി സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എ സി ഉണ്ടെങ്കിലും എ സീൻ്റെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ചൂടായിട്ട് നമുക്ക് രക്ഷയുണ്ടാകില്ല അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരിങ്ങനെ കുഴഞ്ഞ് വീണ് മരിക്കുകയും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ ചൂട് സഹിക്കാൻ പറ്റാതെ തന്നെ ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോയാലും ഇപ്പോൾ ഫാനിട്ടാൽ പോലും നമുക്ക് ആ ഫാനിൻ്റെ കാറ്റുപോലും കിട്ടാത്തൊരു അവസ്ഥയാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് നമ്മുടെ സീലിങ് കാര്യങ്ങളൊക്കെ ചൂടായിട്ട് ആ ചൂട് കാറ്റാണ് നമ്മുക്ക് സീലിങ് ഫാനിലൂടെ നമുക്ക് പിന്നെ നമ്മളെ നേരെ വരുന്നത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു അവസ്ഥയാണ് അതായത് ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമൊരു അവസ്ഥയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ വരണം മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ചൊരു സമാധാനവും കാര്യങ്ങളൊക്കെ പക്ഷെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയില്ലാത്തൊരു അവസ്ഥയാണ് വരുന്നത് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് കുറച്ച് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയത് ഇനിയുള്ള സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചൂടിൻ്റെ കാലമാണ് അപ്പോൾ നമ്മള് എങ്ങനെ ചൂടിനെ നേരിടുമെന്ന് നമുക്കാർക്കും എങ്ങനേയും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്